ഞാന് എൻ്റെ ജോലി സ്ഥലത്ത് അവിടെ ഞാന് ചെറിയൊരു തെറ്റുന്ന രീതിയിൽ ആണ് നേരെ അന്ന് അന്നന്നാള് കമ്പ്ലീറ്റ് ചെയ്യേണ്ട വര്ക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഞാന് കുറച്ചുംകൂടി അന്ന് അലസമായിട്ട് കുറച്ചുംകൂടി ചെയ്തതുകൊണ്ടാണ് ആ ഒരു വര്ക്ക് കമ്പ്ലീറ്റ് ചെയ്യാന് പറ്റാതിരുന്നത് അപ്പോൾ ഞാൻ അതെങ്ങനെ കൈകാര്യം ചെയ്തത് എന്നുവച്ചാല് ഞാന് പിന്നെ അതിന് എക്സ്ട്രാ സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പിന്നീടത് കമ്പ്ലീറ്റ് ചെയ്യുകയായിരുന്നു